ഇന്ത്യയിൽ നോക്കുകയാണെന്ന് പറഞ്ഞാൽ കുറേ അധികം നൃത്ത രൂപങ്ങൾ ഇപ്പോൾ ഒരു സംസ്ഥാനത്തിന്റേതായിട്ടുള്ള കുറേ അധികം നൃത്ത രൂപങ്ങളും കാര്യങ്ങളുമൊക്കെ നിലവിലുണ്ട് ഇപ്പോൾ ഭരതനാട്യം കുച്ചുപ്പുടി തിരുവാതിരക്കളി കഥകളി ബജ്റ ഡാൻസ് കാബറെ ഡാൻസ് അങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ കുറേ അധികം ഡാൻസും കാര്യങ്ങളുമൊക്കെ നമുക്ക് ഉണ്ട് പിന്നെ സിനിമാറ്റിക് ഡാൻസിൻ്റെ കുറേ ആൾക്കാർ തന്നെ കലാകാരന്മാർ അവർ ഉണ്ട് നമ്മൾ നോക്കുകയാണെന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രശസ്തരായ ഒരു ഡാൻസ് കളിക്കാരൻ എന്ന് പറയുകയാണെങ്കിൽ പ്രഭുദേവയാണ് ആൾ സൗത്ത് ഇന്ത്യയിലെ ആണ് മെയിനായിട്ട് ഉള്ളത് സൗത്ത് ഇന്ത്യ എന്ന് നോക്കുമ്പോൾ ആൾ സിനിമ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട ആളാണ് അപ്പോൾ കുറേ അധികം ഡാൻസ് കൊറിയോഗ്രാഫർ ഡയറക്ടർ അങ്ങനെ വിവിധ മേഖലകളിൽ അയാൾ കഴിവ് പ്രകടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അയാളുടെ ഡാൻസ് ആൾ പുറത്ത് വിജയ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ഡാൻസ് ഷോയും കാര്യങ്ങളുമൊക്കെ ചെയ്യാറുണ്ട് ഇന്ത്യയിലെ പല പരിപാടികൾക്കും അയാളുടെ ഡാൻസ് ഷോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അങ്ങനെ ആൾ നല്ലൊരു നൃത്ത രംഗത്ത് നല്ലൊരു പ്രഗത്ഭരായ ഒരാളാണ്